കേരളത്തിലെ പരമ്പരാഗതമായ ഒരു തൊഴിലാണ് കയറുത്പന്നങ്ങൾ ധാരാളം കേരളത്തിന്റെ കേരം വിളയുന്ന നാടെന്നാണല്ലൊ കേരളം ധാരാളം തെങ്ങ് ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്തു കടലും അതിനകത്തു ധാരാളം കായലുമുള്ളതുകൊണ്ട് ചകിരി കൃഷി വളരെ ഭംഗിയായിട്ടു നമുക്കു നടത്താൻ കഴിയും അതുകൊണ്ട് ആലപ്പുഴ കേന്ദ്രമാക്കിയാണ് ഏറ്റവും കൂടുതൽ ഈ ച കയർ മേഖലയുടെ ഉത്പന്നങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടുള്ളത് മുൻപിലത്തെ കാലത്തെപ്പോലെ അല്ല ഇപ്പോൾ ആ ഉത്പന്നങ്ങൾക്കൊരുപാട് ശിൽപ ചാതുര്യം കൂടി കൊടുക്കുന്നുണ്ട് മുമ്പാണെങ്കിൽ ഒരു ക കയർ മാത്രമുണ്ടാക്കുക അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക അങ്ങനെയെക്കെ ആയിരുന്നു ഈ വ വട്ട് വട്ടിങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പം അതൊക്കെ മാറി കയറിത്തന്നെ പല ഉത്പന്നങ്ങളുമുണ്ടാക്കി ഇപ്പം തന്നെ കയർ കൊണ്ട് പലയിടത്തും ഒരു ബെഡ്ഡുണ്ടാക്കി അതിൽ മണ്ണൊലിപ്പും തടയാൻ വേണ്ടി ചെരിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഈ എന്ന കയർ ബെഡ് ഉണ്ടാക്കിക്കൊടുക്കുന്നൊരു സംവിധാനം വരെ ഇപ്പോഴുണ്ട് പിന്നെ പഴയ രീതിയിൽ കയർ കൊണ്ട് പല ഉപയോഗങ്ങളും ഇന്നുണ്ട് പഴയകാലത്താണെങ്കിൽ വയലോപ്പള്ളിയുടെ ഒരു കവിത തന്നുണ്ട് ഈ കയർ കൊണ്ടു പിന്നെ തൂങ്ങി മരിക്കാനും കഴിയും ഊഞ്ഞാലാടാനും കഴിയുമെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ കയറുത്പന്നങ്ങൾ പക്ഷെ ഇന്നു പഴയ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി മറ്റെ അങ്ങനെ ആളുകളെ ആ ഇതിൽ ഉള്ളവരെല്ലാം കയർ വ്യവസായങ്ങൾ അപ്പം മുന്നിലൊ പിന്നിലോട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കു ഒരു വിധമായിട്ടു വന്നിട്ടു കൊണ്ടിരിക്കയാണ് അതിനു തന്നെ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രധാനമായ തൊഴിലാളികൾ ഉപജീവനമാർഗ്ഗം മറ്റൊന്നു കശുവണ്ടിയാണ് കശുവണ്ടി ഫാക്റ്ററികൾ ധാരാളം ആഫ്രക്കയിൽ നിന്നോ അവിടുന്നെല്ലാം ഇറക്കുമതി ചെയ്തു ധാരാളം കശുവണ്ടി ഫാക്ടറികൾ പോലെ ധാരാളം അതു പ്രത്യേകിച്ചു കേരളത്തിലെ തെക്കൻ കേരളത്തിലാണ് അത് എല്ലാം വളരെ കുറച്ചൊഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്തൈയ്യായിരം രൂപയുടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം വന്ന് അന്യസംസ്ഥാനങ്ങളിലേക്കു മാറ്റിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പരമ്പരാഗത തൊഴിലുകൾ എല്ലാം അടുപ്പിച്ചു നമ്മളുടെ ടൂറിസം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ആ തൊഴിൽ പരമ്പരാഗത ഉത്പന്നങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ടു നമ്മളുടെ ആളുകൾക്കു കൂടുതൽ ജോലികൾ കൊടുക്കാനും അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെതന്നെയാണ് കൃഷിയിലും അവരുടെ പഴയ രീതിയെല്ലാം മാറി പുതിയ രീതിയിലുള്ള കൃഷിയുടെ രീതികളവലംഭിച്ചു കൊണ്ടുമിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പഴയകാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വ്യാപാരം ശക്തമായിക്കിടക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പക്ഷെ പരമ്പരാഗത തൊഴിൽ പ്രത്യേകിച്ച് അതുപോലെതന്നെ പിന്നെ കൈത്തറി മേഖല അതുപോലെയുണ്ട് അതെല്ലാം ഒരു പരിധിയിൽ വന്ന് അങ്ങനെ ഒരു കോമ സ്റ്റേജിലങ്ങനെ നയിക്കുകയാണ് അതിനു ഒന്നുകൂടി ജീവിപ്പിച്ചു കൊണ്ടു വരാനുള്ള ആ ശ്രമങ്ങളാണ് അതൊക്കെ